മുമ്പ് സ്കൂളിലേക്ക് പോവാൻ ബസ് ഉണ്ടായിട്ടാ നമ്മോ കുറെ രണ്ട് കിലോമീറ്ററ് മൂന്ന് കിലോമീറ്ററെല്ലാ നടക്കണം ഈ ബാഗും തൂക്കിട്ട് നടക്കും അന്നേരം ആടെ പഠിക്കാനും നല്ല അപ്പോൾ കുറച്ചാണെങ്കിലും പഠിപ്പിക്കുന്നത് നമുക്ക് നല്ല അറിഞ്ഞോണ്ട് ഉണ്ടായി ഇപ്പളത്തെ പിള്ളേർക്ക് ആണെങ്കിൽ ഒന്നും അറിയുന്നില്ല ഇപ്പോൾ സ്കൂളിലേക്ക് പോവാൻ ബസ് ഉണ്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ട് സ്കൂളിൽ കൊണ്ടോയിട്ട് ഇറക്കും അപ്പോൾ പഠിക്കാനും കൂടുതലുണ്ട് ഇപ്പളത്തെ കുട്ടികൾക്ക് പണ്ടത്തെ പോലെ അല്ല പണ്ട് നമുക്ക് കുറച്ചേ പഠിക്കാനിണ്ടായിട്ടു പക്ഷേ പഠിക്കണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് കിലോമീറ്ററ് ദൂരം നടന്നിട്ട് എത്തണം അതുപോലെന്നെ രാവിലെ നമ്മൾ എട്ടരയ്ക്ക് ഇറങ്ങിയെങ്കിൽ ഒൻപതര ക്ലാസ് ബെല്ല് അടിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ എത്തുന്നത് എത്തിയിട്ട് നല്ല ക്ലാസ്സായിരുന്നു പ്രയറെല്ലാം പാടും തുടങ്ങും തുടങ്ങീട്ട് ക്ലാസ് ടീച്ചറ് വരും ഹാജറ് വിളിക്കും അന്നാരെങ്കിൽ പോവാത്ത പിള്ളേർ ഉണ്ടെങ്കിൽ എന്ത് കൊണ്ട് വന്നിറ്റാന്ന് ആ സമയത്ത് വേറെ കുഞ്ഞോട് ചോദിച്ചിട്ട് അറിയണം പിന്നെ അല്ലാതെ ഫോണ് ഉണ്ടായിട്ടാ അമ്മക്ക് വിളിച്ചു ചോദിക്കാനങ്കിൽ ഫോണില്ല ഇപ്പോൾ അങ്ങനല്ല ഇപ്പോൾ ക്ലാസിൽ എത്തില്ലെങ്കിൽ വിളിച്ചു ചോദിക്കും അല്ലെങ്കിൽ ഡയറി എഴുതി കൊണ്ടോണം മുമ്പ് അതൊന്നും ഉണ്ടായിറ്റാ ലീവ് ലെറ്ററ് കൊടുത്താൽ പ്രശ്നുല്ല കൊടുത്തില്ലെങ്കും പ്രശ്നുല്ല അങ്ങനെയിണ്ടായി അതുപോലെ ഇപ്പോൾ ഫോണ് ഇപ്പോൾ എല്ലാ പിള്ളേർക്ക് ഫോണാണ് ഫോണ്ല് പഠിക്കേണ്ടതുണ്ട് അല്ലാത്തതുണ്ട് അപ്പോൾ കുറേണ്ണം എല്ലോം ട്യൂഷന് പോവാതെ തന്നെ ഫോണ്ല് എല്ലാവരും ചെ നോക്കും ഗൂഗിളിൽ സെർച്ച് ആക്കിയിട്ട് എന്തേങ്കിലും ക്വസ്റ്റ്യൻ ആൻസറിന് ആ ക്വസ്റ്റ്യൻ കിട്ടിയെങ്കിൽ അതിൽ ആൻസർ ഗൂഗിളിൽ നോക്കും ഇപ്പോൾ അങ്ങനെ കിട്ടും പണ്ട് അങ്ങനല്ല നമുക്ക് അറിയാത്ത ചോദ്യം എന്തെങ്കിലും ടീച്ചറ് തന്നെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് ഏതെങ്കിലും നമ്മളെക്കെ പഠിക്കുന്ന കുഞ്ഞി ഉണ്ടെങ്കിൽ നമ്മൾ ആടെ പോവും ആടെ പോയിട്ട് ഓളോട് ചോദിക്കും നീ നോട്ട്സ് എഴുതിന ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടീനാ ഇന്നിട്ട് ഓളെ കയ്യിന്ന് നമ്മൾ ഓളെ നോട്ട്സ് നോക്കിയിട്ട് ഞാൻ പകർത്തിയിട്ട് എഴുതും മുമ്പ് അങ്ങനെ ആയിരുന്നു ഇപ്പോൾ പിന്നെ ഫോണ് വിളിച്ചാൽ വാട്ട്സാപില് സെൻഡ് ആക്കും ഇപ്പോൾ പിള്ളർക്ക് പോണ്ട ആവശ്യമില്ല പിന്നെ പണ്ട് നമുക്ക് ഏടെ എത്ര ദൂരം സ്കൂളാണെങ്കിലും പോയിട്ട് വരാം ധൈര്യം ഉണ്ടായി ഇപ്പൾത്തെ പിള്ളാർക്ക് അതില്ല പോയങ്കന്നെ അവർ വന്നോന്ന് വീട്ടിലെത്താതെ നമുക്ക് സമാധാനമില്ല അവർ എത്തീറ്റാ അവർ എത്തീറ്റാ എന്ന് വയിനോക്കണം മുമ്പങ്ങനല്ല നമ്മൾ സ്കൂളിൽ പോയാൽ ആ സ്കൂള് വിട്ട സമയത്ത് നമുക്ക് നടക്കാനുള്ള സമയം അത് കഴിഞ്ഞിട്ടാവുമ്പോൾ നമ്മൾ വീട്ടിലെത്തി ഇപ്പോൾ പിള്ളറ് റിക്ഷയിൽ വരുന്നതാണെങ്കിലും എത്തിയോ എത്തീറ്റെങ്കിൽ എന്തെ റിക്ഷയിന്നാരേങ്കും കുഞ്ഞോളെ കൊണ്ടുപോയോ അങ്ങനെയുള്ള ടെൻഷനല്ലാ ഇപ്പോൾ മുമ്പ് അങ്ങനത്തെ ഒരു ടെൻഷനും ഉണ്ടായിറ്റ സ്കൂള് പോയാൽ പിള്ളറ് എന്തായാലും അഞ്ച് മണിയാവുമ്പോൾ വീട്ടിലെത്തും വീട്ടിലെത്തിയിട്ട് സ്കൂളിത്തെ ടീച്ചറ് എന്ത് പഠിപ്പിച്ചു അതിനെ നോക്കും അതിനെ എഴുതും അതെല്ലം ആക്കണം വൈകുന്നേരം ഇരുന്ന് അതെല്ലാം ചെയ്യും രാത്രി പഠിക്കാനുള്ള വെളിയില്ലാലോ അപ്പൊന്നും കറണ്ടില്ല അപ്പോൾ നമ്മൾ വൈകുന്നേരന്ന വന്നിട്ട് സ്കൂളിന്ന് തന്ന എഴുതാനുള്ളതെല്ലാം എഴുതിട്ട് തീർക്കണം ഇപ്പോൾ പിള്ളേർക്ക് എഴുതാണെങ്കിൽ രാത്രി എന്നാണ് ഇത് കറണ്ട് ഉണ്ടായിട്ട് ഇപ്പോൾ രാത്രിയാന്ന് എഴുതുന്നത് പിള്ളറ് വൈകുന്നേരം വന്ന് കളിക്കും നമുക്ക് കളിക്കാനുള്ള സമയം ഉണ്ടായിറ്റ പണ്ട് എന്താ പറഞ്ഞാ സ്കൂള് പോയിട്ട് വീട്ടിലെത്തുമ്പോൾ തന്നെ അഞ്ച് മണി ആയി അഞ്ച് മണി ആവുമ്പോൾ പിന്നെ എഴുതാനുള്ളത് എഴുതി കുളിച്ചിട്ട് ആവുമ്പോൾ രാത്രി ആയി അതുകൊണ്ട് നമുക്കിപ്പോൾ കളിക്കാനൊന്നും അപ്പോൾ സമയം ഉണ്ടായിറ്റ ഇപ്പളത്തെ പിള്ളേർക്ക് കളിക്കാനെല്ലാം സമയമുണ്ട് സ്കൂള് പോവാനും വണ്ടിയുണ്ട് അതുപോലെ വൈകുന്നേരം വരുമ്പോളും വണ്ടിയിലന്നെ വരും പിന്നെ അല്ലാത്ത സ്കൂളുണ്ട് വണ്ടിയൊന്നും ഇല്ലാത്ത സ്കൂള് പിള്ളേര് പോവും വണ്ടിയില്ലാത്ത സ്കൂളാണെങ്കിൽ മറ്റെ ബസിൽ പോവും പോയി ബാഗെല്ലം തൂക്കി പോവുമ്പോൾ അയിലിന്നു അ ബസിലത്തെ കണ്ടക്ടറും ചീത്ത പറയും അതുപോലെ പ്രായ ആയ ഉളള ആൾക്കാറ് കയറിയെങ്കിൽ അവരും ചീത്ത പറയും ഈ ബാഗെല്ലം കൊണ്ട് ഏടാ ഈ ബസിൽ വരുന്ന നമുക്കെ ഇരിക്കാൻ സീറ്റില്ല അതിൻ്റെ ഇടയിൽ എന്തിന് ഈ കുട്ടികളെ ബസിൽ കയറ്റുന്നേന്ന് അവരും കുറെ പറയും അപ്പോൾ സ്കൂളിന്ന് ഇങ്ങനെ മാഷ് അതിനും ചീത്ത പറയും എന്തെ ഇത്ര വൈകീട്ട് എത്തിയെ എന്നാൽ ബസ് കിട്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ നടന്നിട്ട് പോയതായിരിക്കും പക്ഷേ അത് ടീച്ചർക്ക് അറിയില്ലല്ലോ ടീച്ചറ് ആ കുഞ്ഞ് ഇന്നലെ വന്ന സമയത്തല്ല ഇന്ന് വന്നെ അതുകൊണ്ട് ആ കുഞ്ഞിനെ ചീത്ത പറയും നീ എന്തേ വൈകിയത് അപ്പോൾ ആ ചെക്കന് പറയണ്ടേ ബസിൽ ബസ് ഉണ്ടായിറ്റാ നമ്മൾ ഇങ്ങനെ സർവീസ് അടിക്കുന്ന ബസിലാണ് വന്നത് സ്കൂള് ബസ് ഇല്ലാത്തൊണ്ട് അപ്പോൾ ലേട്ടായി അങ്ങനെല്ലോം പറയേണ്ടി വരുന്നു ഇപ്പോൾ പിന്നെ പിള്ളേർക്ക് ഫോണിൽ എല്ലോം അറിയുന്നു അതുകൊണ്ട് പിന്നെ അത്ര ട്ടൂഷനും ഉണ്ട് മുമ്പ് ട്ടൂഷന്ണ്ടായിട്ടാ നമുക്ക് സ്കൂളിൽ നല്ല പഠിപ്പിക്കും മുമ്പത്തെ മാഷ്മാറും ടീച്ചർമാറും എന്ന് പറഞ്ഞാൽ നല് പഠിപ്പിക്കും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു ദിവസം എഴുതിയില്ലെങ്കിൽ പിറ്റേ ദിവസം അച്ഛനെ വരാൻ പറയണം അമ്മേനെ വരാൻ പറയണം ഇത് എന്തെ എഴുതാത്തെ എന്ന് ചോദിക്കും അമ്മയോടൊന്ന് ചോദിക്കും ഇപ്പം അങ്ങനല്ല ഇപ്പം എല്ലാ ഫോണ് വിളിച്ചിട്ട് ചോദിക്കും